എൻ്റെ ജീവിതത്തിലെ നേട്ടമായിട്ടു കണക്കാക്കുന്നത് ഞാൻ ഒരുപാട് സ്ഥലങ്ങളില് വർക്ക് ചെയ്തിട്ടും കാര്യങ്ങളക്കെ ഉണ്ട് പണ്ടേ ചെറുപ്പം തൊട്ടേ അതായത് പതിനെട്ടാം വയസ്സില് സ്ഥലം ഇവിടുന്ന് പഠിപ്പ് കഴിഞ്ഞ് ഓരോ സ്ഥലങ്ങളില് പോവും ബോംബേയില് പോയിട്ടുണ്ട് ഗുജറാത്തില് പോയിട്ടുണ്ട് പിന്നെ ഗൾഫ് പോയിട്ടുണ്ട് എല്ലായിടത്തും പോയി പണി എടുത്ത് ഇവിടെ നമുക്ക് തിരിച്ച് എങ്ങനെയെങ്കിലും നാട്ടിൽ എത്തണം ഇവിടെ വന്ന് കുറച്ച് നല്ല രീതിയ്ക്ക് ജീവിക്കണം അങ്ങനെയൊരു ആഗ്രഹത്തോടെ ജീവിച്ചിരുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ വർക്ക് ആയിരുന്നു ഇപ്പോൾ ബോംബായിലാണെങ്കിൽ അക്കൗണ്ട്സിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ആ ദുബായ് പോയാപ്പോഴും അവിടെയും അവിടെ അക്കൗണ്ട്സ് അല്ല അവിടെ സ്റ്റോർ കീപ്പിങ്ങിൻ്റെ കാര്യങ്ങളും അതൊക്കെ ആയിരുന്നു പിന്നെ നമ്മള് ജീവിക്കുന്ന സമയത്ത് പല പല കാര്യകട്ടനും കാലഘട്ടങ്ങളിലൂടെയും കടന്നു പോയി അപ്പോൾ ഒക്കെ മനസ്സിൽ ഇതേ ചിന്തയായിരുന്നു എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് നാട്ടിൽ എത്തുക അവിടെ കുറച്ച് കാരം അവളോടൊപ്പം കാരം മക്കളുടെ ഒപ്പവും ഇതുപോലുള്ള കൂട്ടുകാരുടെ ഒപ്പവും ഒക്കെ ജീവിച്ച് അത്യാവശ്യം കുറച്ച് വലിയ സമ്പാദ്യം ഒന്നും ഇല്ലെങ്കിലും ജീവിച്ചു പോകാനുള്ള ഒരു ചെറിയ രീതിയിലെങ്കിലും ജീവിച്ചു പോകാനുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ജീവിക്കുക എന്നുള്ളതാണ് അവിടെ കിടന്ന് കുറേ അധികം കുറേ ഒരെട്ടൊമ്പത് കൊല്ലം ഗൾഫിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിച്ചു അവിടെ കുറേ അത്യാവശ്യം ഒരു വീടു വെച്ചു മക്കളുടെ കല്യാണം പരിപാടിയൊക്കെ കഴിഞ്ഞു ഇപ്പോൾ അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ഒരു ബാങ്ക് ബാലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് നേട്ടമെന്ന് പറഞ്ഞുകഴിഞ്ഞാല് എനിക്ക് അദ്ധ്വാനിക്കാനുള്ളൊരു എന്താ പറയുക കഴിവ് അല്ലെങ്കിൽ അദ്ധ്വാനിക്കാനുള്ളൊരു രീതി ആ ഒരിത് എനിക്ക് ഭയങ്കരമൊരു നേട്ടമായിട്ട് തോന്നിയിട്ടുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് നമുക്ക് നമ്മുടെ ജീവിതത്തിലൊരു ലക്ഷ്യം ലക്ഷ്യബോധം വേണമെന്നുള്ളതൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ അതുപോലെ എൻ്റെ ജീവിതത്തില് എനിക്കിതായിരുന്നു ലക്ഷ്യം വീട്ടില് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മള് സ്വന്തമായിട്ട് ചെയ്യുക നമ്മുടെ വീട്ടിൽ പെങ്ങളെ കെട്ടിച്ചു വിടുക അതുപോലത്തെ കാര്യങ്ങള് അപ്പോൾ അതൊക്കെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റി പിന്നെ മക്കളുടെ കല്യാണം കഴിച്ചു വിട്ടു നല്ലൊരു വീട് പണിതു അത്യാവശ്യം ബാങ്ക് ബാലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ കൂട്ടുകാരൊക്കെ എന്തേലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് സഹായിക്കാൻ പറ്റണുണ്ട് അങ്ങനെ നാട്ടിലിപ്പോൾ എല്ലാവർക്കും നല്ല വിലയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുപോലെ ജീവിക്കണമെന്ന് ആയിരുന്നു എൻ്റെ ആഗ്രഹം അതെനിക്കപ്പോൾ സാധിക്കാൻ പറ്റി അതൊരു വലിയ നേട്ടമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്